ഏതൊക്കെ തരത്തിലുള്ള ചെടികളാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ വള്ളിച്ചെടികളെക്കാളും ഇപ്പോൾ കൊണ്ടുവന്ന് വരുന്നത് മൺചെടികളും അതുപോലത്തന്നെ ഹോം ഡെക്കേഴ്സ് ചെടികൾ അപ്പോൾ വള്ളിച്ചെടികളും വരുന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലാതെയും വരുന്നതായിട്ട് നമുക്ക് കാണാം പ്ലാസ്റ്റിക്ക് ചെടികളെക്കാളും ബെനിഫിറ്റ്സും കാര്യങ്ങളും തരുന്ന ഒന്നാണ് പച്ചനിറഞ്ഞ ചെടികൾ അതിലേക്ക് പച്ചയല്ലാതെ പല തരത്തിലുള്ള കളേഴ്സ് വന്നെത്തുകയും പുതിയ ജനറേഷൻസിൽ പുതിയ ചെടികൾ എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പണ്ടത്തേക്കാളും ഹോം ഡെക്കേഴ്സ് ആയിട്ടിപ്പോൾ യൂസ് ചെയ്യുന്നത് പുതിയ പുതിയ ചെടികൾ പുതിയ പുതിയ സംരംഭങ്ങൾ ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചെടികൾക്കായിട്ട് ഓരോ സംരംഭങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് പഞ്ചായത്തിലായിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ പിന്നെ വേറൊരു നാഷൺസിൽ നിന്ന് ചെടികളിങ്ങോട്ടേക്ക് സ്റ്റെയ്റ്റ്സ് നമ്മുടെ സ്റ്റെയ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആക്കുകയും അത് നമ്മുടെ വീട്ടിലേക്കെത്തുകയും അതു ഹോം ഡെക്കറായിട്ടു യൂസ് ചെയ്യുന്ന പല ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് ഒരു പുതിയ വീട് നിർമ്മിക്കുകയെന്ന എന്നതിലുപരി അവിടെയൊരു പുതിയ ചെടി വളർത്തുക എന്നതാണ് വളരെ പ്രശസ്തമായ കാര്യമെന്നു പറയുന്നത്